ഇപ്പം ഇംഗ്ലീഷ് ഭാഷയിലോട്ടാണ് എല്ലാവരും ഇതാക്കുന്നത് മലയാളം മാതൃഭാഷ ആണെങ്കിലും മലയാളം ഒരു കുറച്ചിലായി കാണുന്ന സമൂഹവും ഈ യുവ തലമുറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മലയാളം അതായത് നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളര്ന്നിട്ട് മലയാളം പറയാതെ ഇംഗ്ലീഷ് ഭയങ്കര വലിയ കാര്യത്തിൽ പറഞ്ഞു ഇംഗ്ലീഷ് പറയലാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം വളര്ന്നു വരികയാണ് മലയാളം നമ്മൾ മലയാളികളാണ് നാട്ടില് ഓടിക്കളിച്ചു വളരുന്ന ആള്ക്കാരാണ് പക്ഷെ മലയാളം പറയാന് നാണക്കേട് പോലെ തോന്നി ഇംഗ്ലീഷ് പറയുന്ന ഒത്തിരിയേറെ ആള്ക്കാരുണ്ട് അപ്പം എന്താ പറയുക ഇപ്പോഴത്തെ കാലത്ത് വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷേനോടുള്ള പിന്നെ വിശ്വാസവും സ്നേഹവും അത് സംസാരിക്കാനുള്ള മടിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അഗ്രസീവ് പോലുള്ള വാക്കുകൾ ഇംഗ്ലീഷ് പോലുള്ള വാക്കുകള് കൂടുതല് ആൾക്കാരും പിന്നെ പറയാന് തുടങ്ങുകയാണ് അത് കൊണ്ടാണ് പിന്നെ ഒരു ഇത് നമ്മൾ മലയാളം ഇപ്പം എന്താ പറയുക മലയാളം കേ എന്താ നമ്മുടെ മെയിന് ലാംഗ്വേജ് ആയിട്ട് എടുത്തു പഠിക്കുന്നവർ വലിയ ചുരുക്കമാണ് മലയാളം കേരളത്തില് എഴുതാനും വായിക്കാനും അറിയുന്നവരും ചുരുക്കം ആയിക്കൊണ്ടിരിക്കുകയാണ് സി ബി എസ് സി സ്കൂള് വന്നത് കൊണ്ട്